എനിക്കോ എൻ്റെ മക്കൾക്കോ ബാങ്കിങ്ങ് മേഖലേ തൊഴിലിനൊരു വലിയ മുൻ മുൻഗണനയൊന്നും നൽകുന്നില്ല എനിക്ക് താത്പര്യം ഡോക്ടറാവാനാണ് അങ്ങനെ എൻ്റെ മക്കൾക്കും അതാണ് താത്പര്യം മക്കളെയും ഡോക്ടറാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അവരെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം എന്നുള്ളൊരു ഇതിലാണ് എനിക്ക് നല്ല ആഗ്രഹം ഉള്ളതതാണ് പിന്നെ ഡോക്ടര് വിഭാഗം തെരഞ്ഞെടുക്കാന് കാരണം എന്താണെന്നുവെച്ചാല് ഒരു ഓരോ മനുഷ്യൻ്റെ ജീവനും നമ്മള് സംരക്ഷണം കൊടുക്കുവാണെങ്കില് അവരെ നമ്മള് സഹായിക്കുകയാണ് ഒരു രോഗി വരുമ്പോള് നമ്മളതിന് നല്ല രീതിയില് ട്രീറ്റ്മെൻട് കൊടുത്ത് നല്ല രീതിയില് സഹായിച്ച് അവരെ നല്ല ഒരു ഇതാക്കാനാണ് അവരസുഖം മാറ്റാനാണ് നമ്മള്ക്ക് ആഗ്രഹം അതുപോലെ പിന്നെ നമ്മള് ഓരോ രോഗികളുടെയും അസുഖം മാറി നമ്മള് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മള് അവരെ ചികിൽസിച്ചാല് നമ്മൾക്ക് ഒരു അതിൻറ്റൊരു കഴിവ് നമ്മുടെയൊരു ഇതിനനുസരിച്ചുണ്ടാക്കുമ്പോള് ആ ഒരു കഴിവിന് അവരുടെ അസുഖം മാറ്റാനും ആ ഏതൊരസുഖത്തിനും സ്നേഹവും സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലിയ മരുന്ന് ആ മരുന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നിടത്തോളം നമുക്ക് അതൊരു നല്ലൊരു സേവനം തന്നെയാണ് പാവപ്പെട്ടവരെ സഹായിക്കാനും നമുക്ക് ഒരു രോഗീനെ ജീവൻ നിലനിർത്താനും നമ്മള് ഡോക്ടര് ആയി പഠിച്ചാല് നമ്മളെക്കൊണ്ട് കഴിയും നമ്മള് ഒരു ഡോക്ടറെന്നുള്ള നിലയ്ക്ക് നമ്മള് ഏതൊരു രോഗി വന്നാലും നമ്മളതിനെ നല്ലൊരു മുൻഗണന കൊടുത്തിട്ട് നമ്മള് നോക്കും ഏതസുഖമായാലും ആരെയും നമ്മള് സഹായിക്കും അങ്ങനൊരു മനസ്സിലൊരു ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഡോക്ടര് ഭാഗം തെരഞ്ഞെടുക്കാമെന്ന് ഞാന് ആഗ്രഹിച്ചത്